നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് എല്ലാ ജില്ലകളിലും മലയാള ഭാഷ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിലും ഓരോ ജില്ലക്കാർക്കും അതിൻ്റെതായ വ്യത്യാസമായ ഭാഷകളാണ് ആ ഓരോ ശൈലികളാണ് ഓരോ ഭാഷക്കാർക്കുള്ളത് പിന്നെ മറ്റുള്ള ഭാഷയെ അപേക്ഷിച്ച് നോക്കി നമുക്ക് മലയാളം ഭാഷ ആണ് ഏറ്റവും കൂടുതല് പഠിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും എന്ത് അതുകൊണ്ടായിരിക്കാം എന്നാ മറ്റുള്ള രാജ്യക്കാർക്ക് മലയാള ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയാതെ വരും അത്ര എളുപ്പത്തില് മലയാഷ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയ അറിയാതെ വരും മലയാള ഭാഷയാണ് മലയാള ഭാഷക്കാരെല്ലാം രാജ്യത്തുമുണ്ട് മലയാളം അറിയാത്തവരാരും ഉണ്ടാവില്ല എല്ലാ നാട്ടിലും മലയാള ഭാഷ പറയുന്നവരുണ്ടാവും മലയാള ഭാഷയാണ് ഏറ്റ് നമ്മളുടെ മാതൃഭാഷ